ഹലോ ഹലോ ആഹ് ഓക്കെ എല്ലാ എല്ലാ ഒന്നാം തിയതിയും വെള്ളം അടിക്കുന്നതായിരുന്നല്ലൊ വേനലൊക്കെ ആയതു കാരണം വെള്ളമെല്ലാം കുറഞ്ഞു കിണറ്റിൽ ഒന്നും വെള്ളമില്ല അതുകൊണ്ട് വെള്ളം കുറച്ച് ഉപയോഗിക്കുക എല്ലാവരും വെള്ളത്തിന് വേണ്ടി കഷ്ടപ്പെടുകയാണ് അതുതന്നെ ഇപ്പോൾ വരും

ഒരുപാട് സ്ഥലങ്ങളിൽ വെള്ളമെത്തിക്കുന്നതുകൊണ്ട് എല്ലാവരും കംപ്ലയിൻ്റെ ആണ് വെള്ളമെത്തിക്കാൻ ശ്രമിക്കാം എല്ലാവർക്കും ഇതുപോലെ എത്തിക്കണം ആ അതുകൊണ്ട് ആ നമുക്ക് പൈസയല്ല വെള്ളം എല്ലാവർക്കും എല്ലാവർക്കും വെള്ളമെത്തിക്കുന്നത് കാരണം കൊണ്ട് താമസിക്കുന്നതാണ് നിങ്ങൾക്ക് എത്തിച്ചു തരാം വളരെ പെട്ടെന്ന്തന്നെ എത്തിച്ചു തരാം കുറേശ്ശേ ഉപയോഗിക്കുക

എല്ലായിടത്തും ഈ വേനൽ കാരണം എല്ലായിടത്തും വെള്ളം വറ്റിയത് കാരണം നോക്കട്ടെ എത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കാം എല്ലാവർക്കും എത്തിക്കണം

ഞങ്ങൾ ശ്രമിക്കാം ഞാൻ കലക്കൽ കലക്കൽ വരാൻ വഴിയില്ലല്ലോ ഞങ്ങൾ ശുദ്ധവെള്ളം ആയിരുന്നു അടിക്കുന്നത് ആരും ഇതുവരെ ഒരു കംപ്ലയിന്റ്റും പറഞ്ഞിട്ടില്ല ടാങ്ക് ടാങ്കോക്കെ കഴുകുന്നുണ്ടോ ക്ലീൻ ചെയ്യാറുണ്ടോ മാസത്തിൽ രണ്ട് മാസ മാസത്തിൽ രണ്ട് പ്രാവശ്യമെങ്കിലും ടാങ്ക് കഴുകണം കഴുകാതിരുന്നാൽ കലക്ക കലക്കവെള്ളം ഞങ്ങൾ ശുദ്ധവെള്ളമാണ് അടിക്കുന്നത് ആരും ഇതുവരെ കംപ്ലൈന്റ്റ് പറഞ്ഞിട്ടില്ല എത്രയും വേഗം എത്രയും വേഗം

ഓക്കേ ആഹ്

ഓ ഓക്കേ നിങ്ങൾക്ക് എന്തായാലും എത്തിച്ചുതരാം നിങ്ങളെ ഉപേക്ഷിക്കുക ഒന്നുമില്ല എത്തിച്ചുതരാം കുറച്ചു ദിവസം നിങ്ങൾക്കു സ്ഥിരം തന്നുകൊണ്ട് ഇരുന്നതല്ലേ തരാം കുറച്ചു ദിവസം കൂടെ വെയിറ്റ് ചെയ്യാൻ പറ്റുമോ വെയിറ്റ് ചെയ്യുവാണെങ്കിൽ അതിനുള്ള കാര്യങ്ങൾ എത്തിക്കാമായിരുന്നു ഓക്കെ നിങ്ങളെ ഞങ്ങൾ ഉപേക്ഷിക്കത്തില്ല എത്തിച്ചുതന്നേക്കാം കുറച്ചു സമയം കുറച്ചു സമയം എടുക്കും ഇല്ല എന്തായാലും എത്തിക്കും എത്തിക്കാൻ നോക്കാം പരമാവധി എത്തിക്കാൻ നോക്കാം ഓ ഓക്കെ ഓക്കെ